അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ എന്താണിവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ അതാണോ വയനാടിൽത്തെ സ്പെഷ്യൽ ഫുഡ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ അതെ അപ്പോൾ ഈ പിടിയുടെ കളറൊക്കെ എങ്ങനെയാണ് അപ്പോൾ നാടൻ ചിക്കൻ കറി ആണോ അതോ സ്പൈസി ചിക്കൻ കറി ആണോ ഇതിൻ്റെ കോമ്പിനേഷൻ ചിക്കൻ കറി തന്നെ ആണോ ഇതിൻ്റെ മെയിൻ കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ എങ്ങനെയാണ് ആണോ എന്നാൽ നമുക്ക് ഇത് ഓർഡർ ചെയ്യാം അല്ലാ ഇത് എത്ര നേരം കൊണ്ട് കിട്ടുവായിരിക്കും അപ്പോൾ അ ഓക്കേ അ ഓക്കേ അതെ ഫുഡ്ഡൊക്കെ അടിപൊളി ആയിരുന്നു മാഡം അപ്പം ഞാൻ നെക്സ്റ്റ് ടൈം ഇവിടെ തന്നെ ആയിരിക്കും വരുന്നത് എനിക്ക് ഇവിടത്തെ ഫുഡ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി ഓക്കേ ഓക്കേ താങ്ക് യൂ